ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ മെയിൻ ആയിട്ട് വരുന്ന ഗതാഗത മാർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൾമോസ്റ്റ് എല്ലാ ടൈപ്പിലുള്ള ഗതാഗത മാർഗ്ഗങ്ങളും ഇപ്പോൾ കോഴിക്കോട് അവൈലബിളാണ് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ റോഡുണ്ട് റെയിൽ വേ ഉണ്ട് എയർ ലൈൻസ് അതായത് വിമാനതാവളങ്ങളുണ്ട് പിന്നെ ഷിപ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ എന്താ പറയുക കടൽ ഉള്ളത്കൊണ്ട് അങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ള ഗതാഗത മാർഗ്ഗങ്ങളും ഇപ്പോൾ കോഴിക്കോട് നമുക്ക് അവൈലബിളാണ് എന്നാലും കൂടുതൽ ഇപ്പോൾ ആൾക്കാർ ആശ്രയിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ റോഡ് പിന്നെ റെയിൽ വേ പ്ലെയിൻ അങ്ങനെയുള്ളത് തന്നെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് എയർ ലൈൻസ് അത് കൂടുതലായിട്ട് അങ്ങനെയാരും ഉപയോഗിക്കുന്നില്ല തീരെ ഉപയോഗിക്കാത്തത് എന്ന് പറയുമ്പോൾ കടൽ മാർഗ്ഗമാണ് കാരണം എല്ലാർക്കും ഇപ്പോൾ ട്രാവൽ ചെയ്യാൻ ഒക്കെ കൂടുതൽ എളുപ്പത്തിനുള്ളത് റിസ്ക് കുറവുള്ളതും ആയിട്ടുള്ള യാത്രകളാണ് ആൾക്കാർ കൂടുതലും ചൂസ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ കൂടുതലായിട്ടും നമ്മൾ നോക്കുമ്പോൾ റോഡ് റെയിൽ വേ ഇത് രണ്ടുമാണ് ആളുകൾ കുടുതലായിട്ടും ചൂസ് ചെയ്യുന്നത് അത്യാവശ്യം എല്ലാ തരത്തിലുള്ള ഗതാഗത മാർഗ്ഗവും ഇപ്പോൾ എന്താ പയുക കോഴിക്കോട് ജില്ലയിൽ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം